ശബ്ദത്തിനു ക്ഷീണവും തളർച്ച ഇടർച്ചയൊക്കെ വരുമ്പോൾ ഏറ്റവുമാദ്യം ചെയ്യുന്നത് ചൂട് വെള്ളം കുടിക്കും ചൂടു വെള്ളം നന്നായിട്ട് തൊ ത്രോട്ട് പൊള്ളാത്ത രീതിയിലുള്ള ചൂട് വെള്ളം കുടിക്കും പിന്നെ ശബ്ദം നല്ലതാകാനായിട്ട് ഇരട്ടി മധുരം ഇരട്ടി മധുരം എല്ലാദിവസവും വായിലിട്ട് ചവച്ചിട്ട് അതിന്റെ നീരിറക്കും അതു ഭയങ്കര നല്ലത ശബ്ദം നല്ലതാകാനായിട്ട് പിന്നേ തണുത്ത സാധനങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കും ത്രോട്ടിന് ത്രോട്ടിന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാലുടനെ നമ്മൾ പിന്നെ പൂർണ്ണ നിശബ്തതയാണ് കാരണം നമ്മൾ മൗന വൃതം പോലെ കുറേ രണ്ടുമൂന്നു രണ്ടു ദിവസത്തേക്കധികം സംസാരിക്കാതെ ത്രോട്ടിന് കമ്പ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുകയാണ് പിന്നെ ത്രോട്ടിനു പെയിൻ വല്ലതും വന്നാൽ ഉപ്പുവെള്ളം ഗാർഗിളിയ്ക്ക അതൊക്കെ ഭയങ്കര സൂപ്പർ മെഡിസിനാണ് ഉപ്പുവെള്ളം ഗാർഗിളിക്കുന്നെയൊക്കെ അതു ചെയ്യാറുണ്ട് ഏറ്റവും പ്രധാനം സ് നമ്മുടെ ത്രോട്ടിന് ന്നിസ നമ്മൾ സംസ അധികം സംസാരിക്കാതിരിയ്ക്കുക അതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഇങ്ങനെ ശബ്ദം നല്ലതാകാൻ നല്ല ക്ലിയർ ശബ്ദമാകാനായിട്ട് ഇരട്ടി മധുരം കഴിച്ചാൽ അതു നല്ല പ്രയോചനമുള്ളൊരു സംഭവ പിന്നെ ചൂടു വെള്ളം ചൂടു വെള്ളം ചെറുചൂടു വെള്ളം എപ്പോഴും കുടിക്കണം തണുത്ത വെള്ളം കുടിക്കരുത് അതൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ ത്രോട്ടിനു നല്ലതാണ് ശബ്ദം എപ്പോഴും ഒരു നല്ല ക്ലിയർ ശബ്ദം വരും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പൊടിക്കൈകൾ പിന്നേ ആ ഇതൊക്കെയാണ് ഓക്കെ താങ്ക് യൂ